നമ്മുടെ ഒരു ഗ്രാമപ്രദേശം ആണ് ഗ്രാമപ്രദേശം എന്നല്ല മിക്സഡ് ആണ് സിറ്റി ആയിവരുന്നു ഗ്രാമം ആണോ എന്ന് ചോദിച്ചാൽ ഗ്രാമം ആണ് അവിടെ കൂടുതലായിട്ട് വ്യവസായം എന്ന് വെച്ചാൽ പല രീതിയിലുള്ള വ്യവസായങ്ങളുണ്ട് ഇപ്പം അച്ചാറ് കമ്പനികളുണ്ട് അച്ചാറ് ഉണ്ടാക്കിയിട്ട് പിന്നെ വിദേശരാജ്യങ്ങളിലോട്ട് അയച്ചുകൊടുക്കുന്ന ഇതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ചക്കേൻ്റെ പ്രൊഡക്റ്റ് അതായത് ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചക്ക പ്രായം തൊട്ട് പഴം പഴം ആവുന്നത് വരെയുള്ള അവസ്ഥയുണ്ട് ഇടിച്ചക്ക കട്ട് ചെയ്ത് കറിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മടെ സാധാരണ ചക്ക പച്ച ചക്ക വറുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പഴുത്തതാണെങ്കിൽ പിന്നെ അത് പിന്നെ ജാം സ്ക്വാഷ് പായസം അങ്ങനെയൊക്കെ നാശാവാതിരുന്ന് അങ്ങനെ ഇൻപുട് ചെയ്യുന്നത് മറ്റ് വിദേശരാജ്യങ്ങളിലേക്കയക്കുന്നത് അതേപോലെത്തന്നെ ചെരുപ്പുകമ്പനികള് ചെരുപ്പ് കമ്പനികൾ ഒത്തിരിയുണ്ട് നമ്മുടെ ഇവിടെ അപ്പം അങ്ങനെയുള്ള അതിപ്പം നമ്മൾ അതാണ് ഗ്രാമം ആണോ വെച്ചാൽ ഗ്രാമം ആണ് എന്നാൽ പിന്നെ സിറ്റി ആണോ വെച്ചാൽ അതെ കാരണം മിക്സഡ് ആണ് ഈ ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ടും നമ്മുടെ നമുക്ക് പുറത്തോട്ട് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഗ്രാമത്തിലുള്ളവർ മൂള കൂടുതലും ഈ പിന്നെ അങ്ങനെയുള്ള സാധനമാണ് ഈ തുറമാങ്ങ പോലെ ഉള്ള സാധനങ്ങൾ വടുക് തുറമാങ്ങ കാരണം നല്ല പിന്നെ നാ ഇതാണ് ഗോമാങ്ങകൾ ഇഷ്ടം പോലെ നമ്മുടെ ഏരിയയിൽ വയനാട് ഭാഗങ്ങളിലുണ്ട് അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ തുറമാങ്ങ ഉണ്ടാക്കുന്നത് നമ്മുടെ പു റത്ത് വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര സ്വീകാര്യത ഉള്ള ഒരിതാണ് അപ്പം അതിന് കൂടുതൽ ഡിമാന്റ് ഉണ്ട് അതുപോലെ അച്ചാറുകൾക്ക് അച്ചാറുകൾ നാരങ്ങ നെല്ലിക്ക പിന്നെ മീൻ അച്ചാർ ഇടുന്നവരുണ്ട് പക്ഷേ മീൻ നമുക്കിവിടെ അത്ര ഫ്രഷ് ആയിട്ട് കിട്ടില്ല കൂടുതലും നാരങ്ങ മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള അച്ചാറുകളാണ് കൂടുതലും നമ്മുടെ വയനാട്ടിൽ നിന്നിട്ട് പോകുന്നത് ഇൻപുട് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെരുപ്പ് കമ്പനികൾ രണ്ടുമൂന്ന് ചെരുപ്പ് കമ്പനികൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഈ അതായത് പിന്നെ അങ്ങനെ കുറേ അവിടെയിങ്ങനെ നോക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് നമുക്ക് തൊഴിലും കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഒരു സംരംഭം ഉള്ളതുകൊണ്ട് തൊഴിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ചായത്തിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംരംഭങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തുകാർ കുടുംബശ്രീ തലത്തിലും പഞ്ചായത്തിൽ ഒക്കെയായിട്ട് നല്ല രീതിയിൽ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്